ആ അതെയതെ പറയൂ ആ എവിടേക്കാരുന്നു ആ ഓക്കേ ഓക്കെ ഇപ്പം മൂന്നാർ ഇടുക്കി അങ്ങനെ ട്രെക്കിങ്ങ് അങ്ങനെ സ്പോട്ടിങ്ങ് ആണ് ആ ഫുഡ്സ് ഉണ്ട് ആ ഫുഡ്സ് ആ അതെയതെ ഫുഡ് ആൻഡ് അക്കൊമൊഡേഷൻ ആണുള്ളത് ആ ഊബർ ഉണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്ര ലിമിറ്റുണ്ട് ഇത്ര സ്ഥലം വരെയേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകും വൺ ഡേ

ആ ഓക്കെ അപ്പോൾ ഊബർ ഊബർ സെപ്പറേറ്റ് ആയിരിക്കും വരിക ആ അതേയതേയതേ പക്ഷേ ഇത്ര ലിമിറ്റുണ്ടാകും ഇത്ര സ്ഥലങ്ങളിലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട്

ആ അത് ആ അതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് ആ പറഞ്ഞാൽ മതി ആ നിങ്ങൾ ഏതു ദിവസമാണ് വേണ്ടതെന്നു വച്ചു കഴിഞ്ഞാൽ അതു പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്തു തരാം ആ ആ ആ ആ മീൽസും എല്ലാം ഉണ്ട് ഏയ് ഇല്ലില്ല അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല നിങ്ങൾക്കെന്തു വേണമെങ്കിലും കഴിക്കാം ഏയ് ഇല്ലില്ല സ്മോക്കിങ്ങ് റൂമുണ്ട് ആ ബാറുണ്ട് ബാറുണ്ട് സർ ആ ആ ആ ഇല്ലില്ലില്ല അത് അങ്ങനത്തെ ആൽക്കഹോളിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല

ഓ പക്ക ആയിരിക്കും സർ ആ അതേയതേയതേ അല്ലെ അറിയണമല്ലോ അല്ലെ ആ പാക്കേജിൽ എത്ര പേരുണ്ടാകും രണ്ടുപേരെ ഉള്ളൂ ഇപ്പം ആ അപ്പം ടു വീലർ അങ്ങനെ റെൻ്റിനൊക്കെ വേണമെങ്കിൽ

ആ ഓക്കെ ഓക്കെ അപ്പം ടൂ വീലറൊക്കെ

ആ ഏയ് ഇല്ലില്ലില്ല പിന്നെ ടൂ വീലർ റെൻ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ടൂ വീലും ഫോർ വീലൊക്കെ റെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട് ആ ആ ഓക്കെ ഓക്കെ ആ അതേയതേ ആ സാറന്മാർ വരുന്നതിനു തലേദിവസം ഒന്നു കോൺടാക്ട് ചെയ്താൽ മതി ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാൽ ശരി